ഞാന് എന്ത് ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കാനാണെങ്കിലും എന്താ എൻ്റെ ഒരു ഇത് പൊടി കൈകള് ഞാൻ അതില് ചേർത്ത് ഉണ്ടാക്കാറുണ്ട് എന്തെങ്കിലും കരണവശാൽ അത് ശരിയായ രീതിയിൽ ആയിട്ടില്ലെങ്കിൽ അതിലേക്ക് വേണ്ട ഇപ്പോൾ ഒരു ഫ്രൈ ഡ്രൈസുണ്ടാക്കാണെങ്കിൽ അത് ആ റൈസിൻ്റെ അരിയൊന്ന് ജസ്റ്റ് മാറിയിട്ടുണ്ടെങ്കിൽ നമ്മള് വേറെ ഏതെങ്കിലും ഒരു ഒരു കൈമ അരിയാണ് കിട്ടിയതെന്ന് വച്ചെങ്കിൽ നമ്മളത് കൂടുതലത് പെട്ടെന്ന് വേകുന്ന ഒരരിയായിരിക്കും ചിലപ്പോൾ അപ്പം നമ്മളത് പെട്ടന്ന് വേകുന്നതിന് മുന്നേ അതിലേക്ക് മറ്റേന്തെങ്കിലും സാധനങ്ങള് ഇട്ടുകൊണ്ട് നമ്മളതിനെ ഒരു നല്ല ഫ്രൈഡ് റൈസ് ആക്കി മാറ്റാൻ ശ്രമിക്കലുണ്ട് പിന്നെ നമ്മളുടെ വീട്ടിലുള്ള ആളുകളൊക്കെ നമ്മള് ഈ ഉണ്ടാക്കുന്ന ഭക്ഷണം തന്നെയാണ് വീട്ടിലുള്ള ആളുകളൊക്കെ കഴിക്കുന്നത് അവരൊക്കെ നല്ല അഭിപ്രായമാണ് നമുക്ക് എപ്പോഴും തരല് പിന്നെ ചെറിയ ചെറിയ രീതിയില് നമ്മള് ഒരു ച ചമ്മന്തി അരയ്ക്കുകയാണെങ്കിൽ നമ്മള് ചിലപ്പോൾ മനസിലാക്കിയിട്ടുള്ളൊരു കാര്യം മോ രണ്ട് മുളക് പച്ചമാങ്ങ അങ്ങനെയൊക്കെ എടുത്തിട്ട് ഒരു ചമ്മന്തി അരയ്ക്കുക എന്നുള്ളതായിരിക്കും അതെ മുളകിനെ നമ്മൾ അത് അടുപ്പത്തില് ഇട്ടിട്ട് ചുട്ടിട്ട് ഒരു ചമ്മന്തിയായിട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കലുണ്ട് എപ്പഴും നമ്മള് നമുക്ക് നമ്മുടെ അമ്മമാര് പഴയ തലമുറയിൽ കിട്ടിയ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങള് നമ്മളതില് ഉൾപ്പെടുത്തി കൊണ്ട് അതിനെ കൂടുതൽ ടേസ്റ്റ് ആക്കാനാണ് എപ്പഴും നമ്മള് ശ്രമിക്കാറുള്ളത് ഇനി എന്തെങ്കിലും കാരണവശാൽ അത് ചെറിയ ചെറിയ പാളിച്ചകൾ അതില് വന്നാൽ കൂടി നമ്മളതിനെ മറ്റെന്തെങ്കിലും കാര്യങ്ങള് ചേർത്ത് അത് നല്ല ടേസ്റ്റ് ആക്കാനാണ് എപ്പഴും ശ്രമിക്കലുള്ളത് പിന്നെ ചെറിയ ചെറിയ പൊടി കൈകള് ഉപയോഗിച്ച് നമ്മള് ഇത്തിരി ഉപ്പ് അധികമായിപ്പോയി അപ്പം നമ്മളതിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ ടിപ്പുകളുപയോഗിച്ച് നമ്മളതിനെ കുറയ്ക്കുന്നു കുറച്ച് എണ്ണ അധികമായി പോയി അപ്പം നമ്മള് ഒരു ഐസ് ക്യൂബ് വെച്ചിട്ട് ആ എണ്ണനെ നമുക്ക് പെട്ടന്ന് എടുത്തു മാറ്റാൻ കഴിയും അങ്ങനെ ചെറിയ ചെറിയ ടിപ്പുകളുപയോഗിച്ച് കൊണ്ട് നമ്മള് അത് ഏറ്റവും നല്ല രീതിയിൽ ആക്കാൻ ശ്രമിക്കലുണ്ട് പിന്നെ ഒരു കറിയാണെങ്കിൽ കൂടി നമ്മള് നല്ല രീതിക്ക് എരു ഒരു മീൻ കറി വെക്കുകയാണെങ്കിൽ ഇപ്പം നൻ ഞ നമ്മളുടെ നാട്ടില് കിട്ടുന്ന പുളി നാടൻ പുളിയാണ് പുറത്ത് നിന്ന് നമ്മളൊരു വീഡിയോസും മറ്റെന്തെങ്കിലും കണ്ട് കാണുമ്പോൾ അതിൽ എപ്പളും പിന്നെ വേറെ പുളികള് ചേർക്കുന്നത് കാണാം കാണാറുള്ളത് അപ്പം നമ്മളെപ്പളും നമ്മളുടെ ടേസ്റ്റ് നിലനിർത്താനാണ് എപ്പളും ശ്രമിക്കല് അതില് ചെറിയ ചെറിയ ഇതും പാളിച്ചകള് വരുമ്പോൾ നമ്മള് അതിനെ മെയിൻടെയിൻ ചെയ്ത് വേറെന്തെങ്കിലും ഉപയോഗിച്ച് അതിനെ നല്ല രീതിക്ക് ആക്കാൻ ശ്രമിക്കാറുണ്ട്